അ പറയ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആണല്ലേ കല്യാണ പരുപാടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നത്തേക്ക് ആയിരിക്കും വേണ്ടത്

എന്തെല്ലാം ആണ് വേണ്ടത്

പച്ചക്കറി എന്തെല്ലാം ആണ് വേണ്ടത്

വെളുത്തുള്ളി വേണം പിന്നെ അ അ അ ഇത് എത്ര പേർക്കുള്ള പരിപാടി ആണ് ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം അ നമുക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ആയിരം പേർക്കുള്ള വലിയ പരുപാടി ആയതുകൊണ്ട് ഒന്നിച്ച് നമുക്ക് പർച്ചേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൈസ നമുക്ക് കുറഞ്ഞ് കിട്ടും സാധരണ കൊടുക്കുന്നതിൽ നിന്നേയ് അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് നമ്മുടെ പരുപാടി എന്നാണ് ഉള്ളത് നിശ്ചയിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ തലേദിവസം കിട്ടത്തക്ക രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്ക് മൂന്ന് ദിവസം മുൻപ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എന്തെല്ലാം എത്രയൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എനിക്ക് അയച്ച് കാട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൂട്ടിയിട്ട് ഞാൻ ഒരു വില വിവരം തരാം അപ്പോൾ അതിന് ശേഷം പറയുന്ന ഡേറ്റിന് തന്നെ ഞാൻ അവിടെ എത്തിച്ചു തരാം

അ ശരി ശരി